കാരുണ്യ ഹോസ്പിറ്റലല്ലേ ആ സാറേ എനിക്ക് പനിയായിരുന്നെ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് നല്ല തലവേദന ഉണ്ട് ഇല്ല ഇല്ല വേറെ എവിടേയും കാണിച്ചിട്ടൊന്നും ഇല്ല പാരസെറ്റാമോള് കഴിച്ചിട്ടുണ്ട് അ അത് രണ്ട് ദിവസമായി പാരസെറ്റാമോള് കഴിക്കുന്നു അറന്നൂറ് എം ജി യുടെ അ എനിക്ക് തീരെ വയ്യാതെ ആവുന്നുണ്ട് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട് തീരെ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല നല്ല മേലും കയ്യും ബോഡി പെയ്നൊക്കെ ഉണ്ട് ഏതെങ്കിലും പ്രത്യേകിച്ചു ഒരു മരുന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരികയായിരുന്നെങ്കിൽ എന്തോ പാരസെറ്റാമോൾ അ അ സർ വാട്സാപ്പില് ഇടുകയാണോ ചെയ്യുക അ അപ്പോൾ അത് വാങ്ങി കഴിക്കാനാണോ എങ്ങനയാണ് ക്ലിയർ ആയില്ലായിരുന്നു

പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ സാറെ വേറെ എന്തേലും ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ആവി പിടിക്കാനൊക്കെ പറ്റുമോ അ അതെ അ അതില് മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാമെന്നുള്ളതാ പിന്നെ വേറെ എന്താണ് ചെയ്യേണ്ടത് എപ്പഴാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാനോ പറഞ്ഞത് ഈ മരുന്ന് കഴിച്ചിട്ട് എപ്പഴാണ് വരേണ്ടത് അ ഓക്കെ